എൻ്റെ വീട്ടില് എനിക്കും പിന്നെ എൻ്റെ ചേട്ടനും അമ്മയ്ക്കുമാണ്ഏറ്റവും കൂടുതല് ഇതില് താല്പര്യമുള്ളത് ഭയങ്കരെ എന്നു വെച്ചാൽ അവര് രണ്ടാളും ചെയ്യുന്നത് കണ്ടിട്ടാണ് എനിക്കും ഇതിലൊരു താല്പര്യം വന്നത് അവര്ക്കായാലും ഈ പൂവുണ്ടായി കാണുമ്പോൾ ആർക്കായാലും നമ്മള് നട്ടുപിടിപ്പിച്ച ചെടിയിൽ ഒരു പൂ കാണുമ്പോൾ ആർക്കായാലും സന്തോഷമാണ് അതേപോലെതന്നെ ആ സന്തോഷം കണ്ടപ്പോൾ എനിക്കും എനിക്ക് പിന്നെ കൂടുതലായിട്ട് പച്ചക്കറികള് നട്ടുപിടിപിടിപ്പിക്കണം പൂവാകുമ്പോൾ നമുക്ക് അങ്ങനെ നമ്മളുടെ കാര്യത്തിന് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ലല്ലോ പച്ചക്കറിയാകുമ്പോൾ നമുക്ക് പിന്നീടാണെങ്കിലും നമ്മുടെ ആവിശ്യങ്ങൾക്ക് ഉപയോഗിക്കാമല്ലോ അതുകൊണ്ടാണ് കൂടുതൽ തന്നെ പച്ചക്കറിത്തോട്ടങ്ങള് ആണെങ്കിലും കൂടുതലുണ്ടാക്കാറ് അപ്പോൾ എൻ്റെ വീട്ടില് എൻ്റെ വീട്ടിൽ കുടുംബപരമായിട്ട് കൃഷിക്കാരായതുകൊണ്ടും തന്നെ എനിക്ക് എനിക്ക് പൂന്തോട്ട ശീലമൊക്കെ ഭയങ്കര ഭയങ്കര ഇതാണ് അപ്പോൾ അതുകൊണ്ടുതന്നെ കൃഷിയിലേക്ക് എനിക്ക് ആവാൻ ഭയങ്കര താല്പര്യമാണ് ഇപ്പോൾ എൻ്റെ വീടിൻ്റെ ചുറ്റുവായാലും ഫുൾ മരങ്ങളും ജാതിയും പിന്നെ അതിനെ നട്ടുനനപ്പിക്കലൊക്കെ ആയ കാരണം എനിക്കും അതില് ഭയങ്കര ഇൻട്രസ്റ് ആണ് അതുകൊണ്ടുതന്നെ എനിക്ക് എൻ്റെ വീട്ടില് എൻ്റെ ഞാൻ കണ്ടുവളർന്നതും ഈ കുരുനട പിന്നെ അതിൽ ചെടി ഉണ്ടാവുക പിന്നെ അതിനു നമുക്ക് കായ്ഫലങ്ങൾ ലഭിക്കുക എന്നൊക്കെ പറയുന്നതൊക്കെ എനിക്ക് ഭയങ്കര ഒരു ഇതായിരുന്നു അപ്പോൾ അങ്ങനെ ഓരോന്ന് കണ്ട് കണ്ട് വളർന്ന് നമ്മള് കണ്ട് വളർന്ന കാര്യങ്ങളായിരിക്കും നമുക്ക് താല്പര്യങ്ങളായി തീരുക അതുകൊണ്ട് തന്നെ ഇങ്ങനൊരു പൂന്തോട്ടവും എൻ്റെ മനസില് ചെറുപ്പം മുതലേ കണ്ടുകൊണ്ടായിരിക്കും എനിക്ക് ഇങ്ങനൊരു താല്പര്യം വന്നത് പിന്നെ എൻ്റെ അമ്മയ്ക്കാണ് എന്നെക്കാളും കൂടുതലേറെ താല്പര്യം അമ്മയ്ക്ക് എവിടെ പോയാലും ചെടികള് നോക്കുക അതിനെ കണ്ട് ലൈക്ക് അത് കണ്ട് അത് വാങ്ങുക എന്നിട്ട് അതിനെ പരിപാലിക്കുക പിന്നീട് അതിൽ നിന്ന് ഉണ്ടാകുമ്പോൾ അത് ലൈക് അതൊരു സന്തോഷമാണ് ഒരു ഹാപ്പിനെസ്സാണ് അത് എപ്പോഴും നമ്മള് നട്ട് വളർത്തിയ ചെടിയിൽ നമ്മളൊരു പൂ കാണുമ്പോൾ ആർക്കാണെങ്കിലും സന്തോഷം തന്നെയാണ് അതുപോലെതന്നെയാണ് എനിക്കും അങ്ങനെ എൻ്റെ അമ്മയ്ക്കാണ് എറ്റോതികം താല്പരൊള്ളേ പിന്നെ എൻ്റെ ചേട്ടനായാലും ഭയങ്കര താല്പര്യമാണ് അമ്മേടെ കൂടെ നിന്ന് സഹായിക്കുന്നത് ചേട്ടനാണ് അയിന് വള ഇടാനും അതിന് എന്നുവെച്ചാൽ വളങ്ങള് ഞങ്ങള് സാധാരണയായിട്ട് അടുക്കളയിൽ നിന്ന് വരുന്ന വേസ്റ്റ് ഞങ്ങളതെടുത്തു വെച്ച് പിന്നീട് അത് മണ്ണിരയാക്കി പിന്നീട് ഞങ്ങള് അത് ചെടികളിലേക് ഇടാറാണ് പതിവ് അപ്പോൾ അതുകൊണ്ട് അതെല്ലാം ചെയ്ത് കണ്ട് വളർന്നത് കൊണ്ടുതന്നെ അങ്ങനെ കെമിക്കലായിട്ടുള്ളതൊന്നും ചേർക്കുന്നില്ല അപ്പോൾ എൻ്റെ വീടിൻ്റെ രണ്ടുസൈഡും ഇങ്ങനെ പൂന്തോട്ടമോ ഇതൊക്കെയാണ് അപ്പോൾ എൻ്റെ വീട്ടിലെനിക്കും എൻ്റെ കുടുംബപരമായിട്ട് എല്ലാവർക്കുണ്ട് കൂടുതലായിട്ടും ഞാൻ കണ്ടുവളർന്നതുതന്നെ എൻ്റെ അമ്മയ്ക്കാണ് എറ്റവുമുള്ള താല്പര്യം